നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ മാധ്യമങ്ങൾ എങ്ങനെയാണ് പ്രാദേശിക സാമ്പത്ത്വ്യ സമ്പദ്വ്യവസ്ഥയേയും പ്രാദേശിക സമൂഹത്തെയും പിന്തുണയ്ക്കുക എന്ന് ചോദിച്ചാൽ ആവതുപോലെ പിന്തുണയ്ക്കുക നന്നായിട്ട് നല്ല ഇന്നത്തെ കാലത്ത് ഒരു പിന്നെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ പല കാര്യങ്ങളിലും അതിൽ പല കാര്യങ്ങളും പ്രാദേശികമായ സമ്പദ്വ്യവസ്ഥയെ കുറിച്ചും പിന്നെ പ്രാദേശികമായ സമൂഹത്തെ കുറിച്ചും നന്നായിട്ട് നല്ല പിന്തുണ നൽകുന്ന ഒരു പ്രതിഭാസമായി വളർന്നിരിക്കുകയാണ് അതിന് അവരുടെ സംഭാവന അവർ അത് നന്നായിട്ടാണ് ഒരു നല്ല രീതിയിലാണ് ഒരു സംഭാവന മാധ്യമങ്ങളുടെ ഫാഗത്തുനിന്നും നമുക്ക് ഉണ്ടാകുന്നത് ഇതിനെ സംബന്ധിച്ച് ഞാൻ ഒരു പ്രാദേശിക എന്തെങ്കിലും ഒരു സമ്പദ്വ്യവസ്ഥയെ കുറിച്ചോ അതിൻ്റെ പിന്നെ അതിൻ്റെ നടത്തിപ്പിനെ കുറിച്ചോ അതിന് എന്തെങ്കിലും ഒരു തകരാറിനെ കുറിച്ചോ ഒരു ജനങ്ങൾക്ക് ഒരു മനസ്സിലാക്കി കൊടുക്കുന്ന അതിൻ്റെ ഉൽഭവത്തെ കുറിച്ചും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതും അതിന് വരുന്ന പാളിച്ചകൾ മനസ്സിലാക്കി കൊടുക്കാനും ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇതുകൂടാതെ പിന്നെ ഇത് പിന്നെ അവർ ഈ ഈ ജന ഇവരുടെ പിന്തുണ ഉള്ളത് ഈ പിന്തുണ ഉള്ളത് കാരണമാണ് പിന്നെ ജനങ്ങൾക്ക് പല വിവരങ്ങളും അവരുടെ ചെവികളിൽ എത്തുന്നത് പണ്ടുള്ള കാലങ്ങളിൽ ദിവസം വരുന്ന പത്രങ്ങളിലോ അല്ലെങ്കിൽ ചില എല്ലാ വീടുകളിലും പത്രങ്ങൾ ഉണ്ടാവണമെന്നില്ല ആരെങ്കിലും പറഞ്ഞ് അറിയുന്നത് വഴിയൊക്കെയാണ് പല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് പല പല ലോക്കൽ ചാനലുകൾ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ഉണ്ടാ ഉണ്ടായിട്ടുണ്ട് എപ്പോഴും തന്നെ ഓരോന്നിനെ കുറിച്ചും ഓരോ ന്യൂസുകൾ എപ്പോഴും ഇടപെടാതെ ഉണ്ടാകാറുണ്ട് ഇതെല്ലാം ഈ ചാനലിൻ്റെ ഒരു പ്രത്യേ ഈ ഒരു എന്നെ പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ കുറിച്ച് പിന്നെ പ്രാദേശിക നമ്മുടെ സമൂഹത്തിന് സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇതെല്ലാം തന്നെ ഈ മാധ്യമങ്ങളുടെ വളർച്ച കാരണം ജനങ്ങൾ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റംവരെ അത് എത്താറുണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു സംഭവത്ത് ഒരു ചെറിയൊരു കോണിൽ പോലും എന്ത് സംഭവിച്ചാലും എന്ത് മരണം ആണെങ്കിലും ജന ഒരു പിന്നെ പിന്നെ ഇപ്പം തന്നെയും ഒരു ഇപ്പം തന്നെ വളരെ ഒരു സംഭവത്ത് നടക്കുന്നതെന്ന് വെച്ചാൽ വയനാട് വയനാട് ദുരന്തം ആ ഒരു ദുരന്തന്തിൻ്റെ എല്ലാ നേർകാഴ്ച്ചകളും ജനങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണാനുള്ള സൗകര്യം ഒരുക്കി തരുന്നത് ഈ മാധ്യമങ്ങളുടെ ഒരു ഒരു പ്രത്യേക ഒരു സംഭാവനയാണ് ഈ മാധ്യമങ്ങൾ ഇത്രയും സംഭാവന ഇല്ലാ വഹികാത്തിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ചൊരു വിവരവും ഉണ്ടാവുകയില്ല ജനങ്ങൾക്ക് ആ ഒരു അറിവ് അവരിലേക്ക് എത്തിച്ച് കൊടുക്കുന്നത് ഒരു പ്രത്യേക പങ്ക് തന്നെയാണ് ഈ മാധ്യമങ്ങൾ വരുത്തുന്നത് അതുകൂടാതെ തന്നെ ഇന്നത്തെ കാലത്ത് തൊഴിൽപരമായി അധികം അത്രയോ എത്രയോ കുട്ടികൾ എത്രയോ വിദ്യാർത്ഥികൾ പഠിച്ച് പിന്നെ പിന്നെ പഠിച്ച് ഈ ഒരു മേഖലയിലെ പ്രവർത്തിക്കുന്നവരുണ്ട് ഇത്രയും സാധനം മാധ്യമങ്ങളുടെ ഇത്രയും വളർച്ച ഉള്ളതുകൊണ്ട് കൾ എത്രയോ ജ് എത്രയോ കുട്ടികൾക്ക് പിന്നെ എത്രയോ പിന്നെ വിദ്യാർത്ഥികൾക്ക് എത്രയോ യുവജനങ്ങൾക്ക് ഇതിനകത്ത് ഒരു തൊഴിൽ അവസരം ലഭിക്കുകയുണ്ടായി ഇതിനെല്ലാം ഈ മാധ്യമങ്ങൾ വളരെ ഏറെ സംഭാവന നൽ മാധ്യമങ്ങൾ വളരെയേറെ സംഭാവന നൽകുന്നുണ്ട് ഇതുകൂടാതെ ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ മനുഷ്യൻ്റെ ഓരോ ഇടപെടലുകളും രാഷ്ട്രീയപരമായും മതപരമായും ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്കും അവർ അതിനെ അതിനെ എല്ലാം എല്ലാ രേഹകളും രേഖകൾ മൂ സഹിതം ഇത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും മാധ്യമങ്ങൾ നന്നായി പങ്ക് വഹിക്കുന്നുണ്ട് അവരുടെ സംഭാവന നമുക്ക് പറഞ്ഞറിയിക്കാ മേലാത്തവിധം അവർ വളരെയേറെ സംഭാവന ഈ ജ മാധ്യമങ്ങൾല് മാധ്യമപ്രവർത്തനം വഴി നമുക്ക് ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇത് കൂടാതെ ഒരു പിന്നെ പിന്നെ സമ്പദ്വ്യവസ്ഥയെ സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് പിന്നെ പ്രാദേശിക സമൂഹത്തിനെ എങ്ങനെ അത് പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ സ്പെഷ്യലി ആയിട്ട് ഇവരുടെ ഒരു ജോലി ജോലിപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത് എത്രമാത്രം ഓരോ ഭവനത്തിനും ഓരോ അംഗങ്ങൾക്കും പിന്നെ ബിരുദാനദരബിരുദത്തിലുള്ള ആളുകൾക്ക് പോലും അതിൽ ഒരു ഈ മേഖലയിലേക്ക് ജോലി ലഭിക്കുന്നത് മുഴുവൻ കുറേയധികം പിന്നെ സാമ്പത്തികപരമായി ഉന്നതി ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഒത്തിരിയേറെ പാവപെട്ട കുടുംബങ്ങൾ പോലും ഒരു ഒന്നോ രണ്ടോ പേർ ഇതുപോലെ തൊഴിൽ അവസരങ്ങൾ കിട്ടുന്നത് കൂടി അവരുടെ കുടുംബവും മെച്ചപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്